ഹലോ ഹലോ കാനറാ കാനറാ ബാങ്കായിരുന്നു ആരായിരുന്നു കാറിൻ്റെ ലോണാ വരുന്നുണ്ടല്ലേ അപ്പോൾ കാറിന് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് ഇപ്പം ആനുവൽ ഇൻകം ഉണ്ടെന്ന് ഇപ്പം ഏത് കമ്പനിയിലേക്കാണ് വർക്ക് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണ് ആ കോൺട്രാക്ടർ ആണല്ലേ

ആണല്ലേ ഓക്കെ അപ്പം അങ്ങനെയാന്നു വെച്ചു കഴിഞ്ഞാല് ആ എങ്ങനെയാന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മളവിടുത്തെ നിങ്ങളുടെ സാഹചര്യം ഒക്കെ വന്നു നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോണ് തരാൻ പറ്റുവൊള്ളൂ കാരണം കുറെ ചെയ്തു തരാൻ പറ്റും പക്ഷെ നമ്മളവിടെ എൻക്വയറിക്കും കാര്യങ്ങളൊക്കെ വെരും കാരണം നമ്മുടെ നമ്മളായിട്ടല്ല തരുന്നത് നമ്മുടെ മുകളില് അതായതിപ്പം ഞാനിവിടെ ഇരിക്കുന്ന ഒരു മാനേജർ മാത്രമാണ് അതെ മാനേജർ മാത്രമാണ് അപ്പം നമുക്കിവിടെ ഇതിൻ്റെ മുകളില് വേറെ ആൾക്കാരുണ്ട് ഇപ്പം ഇതൊക്കെ തരുന്നൊരാളുണ്ടല്ലോ നമുക്ക് ഇത്രയും ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അപ്പം അവര് ഇതിനൊരു നിങ്ങളുടെ വീട്ടിലേക്ക് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് എങ്ങനത്തെ ജോലിയാണോ അപ്പം ഈ ആനുവൽ ഇൻകം ഇങ്ങനത്തെ ആണോ കിട്ടുന്നത് നിങ്ങളുടെ സാഹചര്യം ഒക്കെ നോക്കിയിട്ടേ അവര് ഈ ലോണ് സാങ്ഷനാക്കി തരികയുള്ളൂ പിന്നെ നിങ്ങള് ഏത് വണ്ടിയാണ് എടുക്കുന്നത് ഹാരിയറല്ലേ അതിനു ഏകദേശം എത്ര രൂപ വരും ട്വൻറ്റി വൺ ലാക്സ് നിങ്ങൾക്ക് മുഴുവനായിട്ട് ലോണിടാനാണോ അതോ നമുക്കിവിടുന്നു എത്രയാന്ന് വെച്ചാണ് വേണ്ടത് ഡൗൺ പേയ്മെൻറ്റിടും അപ്പം ബാക്കി എടുക്കാൻ ആ ഓക്കെ പകുതിയേ വേണ്ടി വരുള്ളു അല്ലേ അപ്പം ഒരു പന്ത് പതിനൊന്നും ചില്ലറയും വേണ്ടിവരും അല്ലേ ആ ഓക്കെ അപ്പം പതിനൊന്ന് ആ അത്രയും ലക്ഷം രൂപ ആണല്ലോ അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ എൻക്വയറിയും കാര്യങ്ങളുമൊക്കെ എന്തായാലും ഉണ്ടാവും അവരുടടുത്ത് നിന്ന് ഉണ്ടാകും ഉണ്ടാകും കാരണമെന്തെന്നു വെച്ചു കഴിഞ്ഞാല് ഇത്രയും എമൗണ്ട് ഒരാൾക്ക് കൊടുക്കുക്കാന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസ്സിബിൾ അല്ലല്ലോ അപ്പം എന്തായാലും പ്രൂ അപ്ലൈ ചെയ്യണെങ്കില് നിങ്ങള് ഇവിടെ നേരിട്ട് വരണം നേരിട്ട് വന്നിട്ട് ആധാർ കാർഡും പാൻ കാർഡ് ഒരു നാലു ഫോട്ടോ ഇവിടുത്തെ ഇവിടെ അക്കൗണ്ട് ഉണ്ടോ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ നാലു ഫോട്ടോയും ഈ ഇത് ഇത്രയും മതി പിന്നെ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റും ഇതും കൊണ്ടു വന്നിട്ട് ഇവിടൊരു അപേക്ഷയുണ്ട് ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാല് നമ്മളത് ഒരു വൈകാണ്ടു തന്നെ നമ്മളത് സാങ്ഷൻ ഇതായിട്ട് ചെയ്യും അത് അതായത് നമ്മള് അത് മുകളിലോട്ട് അയക്കും മുകളിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അവര് വന്നിട്ട് നിങ്ങക്കിത് എൻക്വയറീം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് അവര് വന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതായത് നിങ്ങക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്നടയ്ക്കാൻ പറ്റുന്നൊരാളാണെന്നുണ്ടെങ്കില് നമുക്കത് പെട്ടെന്ന് മുകളിലോട്ടയച്ചിട്ട് ബാക്കിയൊരു വൺ വീക്ക് കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് കേറും പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് തരില്ല നിങ്ങള് ആ വണ്ടിയുടെ ആ ബാങ്ക് ബാങ്കിലേക്ക് അല്ല ബാങ്കിലേക്കല്ല നേരെ നിങ്ങള് വണ്ടിയെടുക്കുന്ന സ്ഥലത്തേക്കാണ് പോകുക അവിടുത്തെ അക്കൗണ്ട് നമ്പറും ഡീറ്റൈൽസും നിങ്ങളെന്തായാലും ഇവിടെ തരണം പിന്നെ അവിടുന്നൊരു കൊട്ടേഷൻ മേടിക്കുക അതായത് നിങ്ങള് ഈ ഇത്രയും വണ്ടിയെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കെത്രയാണ് ലോണ് വേണ്ടത് അതായത് ബാക്കി പേയ്മെൻറ്റ് നിങ്ങൾ അടച്ചിട്ട് അടച്ചേൻ്റെ ബാക്കി കൊട്ടേഷൻ അതൊരു കൊട്ടേഷനായിട്ട് എഴുതി തരും അവര് അപ്പ അത് നിങ്ങളിവിടെ കൊണ്ടു വന്നു വെച്ചു കഴിഞ്ഞാല് നേരെ അവിടുത്തെ കമ്പനിയിലേക്ക് നമ്മള് നേരിട്ടാണ് അയച്ചു കൊടുക്കുക നിങ്ങടെ കൈയില് തരില്ല നേരിട്ട് കമ്പനിയിലേക്കാണ് അയക്കുക ആ അപ്പം നിങ്ങള് നാളെ വന്നിട്ട് നാളെ വന്നിട്ടൊന്നു റെഡിയാക്കാം റെഡിയാക്കിയാൽ മതി അത്രയാ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ